പാട്ട് ഞാൻ ഒരു മൂന്ന് വയസ്സ് മുതൽ പഠിക്കുന്നതാണ് ഞാൻ ഇപ്പോൾ സ്കൂൾ സ്കൂളിലും പാട്ട് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ വേറെ ഒരു പഠിക്കാനായിട്ടൊരു സാറിൻ്റെ അടുത്ത് പോകുന്നുണ്ട് സാറിൻ്റെ വീട്ടിൽ വച്ചാണ് സാറ് പഠിപ്പിക്കുന്നത് അത് ഒരു മണിക്കൂറോളം സാറിൻ്റെ വീട്ടിലാണ് പഠിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ രാവിലെ അതി രാവിലെ എണീറ്റ് സാധകം ചെയ്യും അതുപോലെ തന്നെ സ്കൂളിൽ പാട്ട് പാടും അതുപോലെ ഗാനമേളക്ക് പാടാറുണ്ട് മറ്റ് കൂട്ടുകാർക്കും ടീച്ചർമ്മാർക്കും ഒഴിവ് സമയങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് എല്ലാവർക്കും പാട്ട് പാടി കൊടുക്കാറുണ്ട് പാട്ട് പാടാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പാട്ട് കുട്ടിക്കാലം മുതലേ എൻ്റെ ഇഷ്ടത്തിനായിരുന്നു ഞാൻ പഠിച്ച് തുടങ്ങിയത് പിന്നെ മാതാപിതാക്കൾ പഠിപ്പിക്കുമ്പോൾ ആ ഒരു ഇതിൽ അല്ലെ നിൽക്കുക എന്നെ സംബന്ധിച്ച് എനിക്ക് ആയിരുന്നു പാട്ട് പഠിക്കാൻ താൽപ്പര്യം അതുകൊണ്ട് തന്നെ ഞാൻ അതിനായിട്ട് എന്നും രാവിലെ കുറച്ച് സമയം പാട്ടിനായിട്ട് മാത്രമായിട്ട് മാറ്റി വയ്ക്കും